ഹലോ ചേട്ടൻ ഇപ്പോൾ എവിടെയാണ് ഞാനിവിടെ പിക്കപ് പോയിൻ്റിൽ ഉണ്ട് ആ ഞാനെൻ്റെ വീട്ടിൻ്റെ ഫ്രൺൻ്റിലാണ് പിക്കപ്പ് പോയിൻ്റ് കൊടുത്തത് അവിടെ തന്നെ ഉണ്ട് ഞാൻ ചേട്ടനിവിടെ എത്തി എന്നാണ് മെസേജ് വന്നത് ഇല്ല ചേട്ടനെ കാണുന്നില്ല ചേട്ടനിപ്പോൾ കൃത്യമായിട്ട് എവിടെയാണ് അയ്യോ അത് എൻ്റെ വീട്ടിൻ്റെ പുറകുവശം ആയിട്ട് വരും കേട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വണ്ടിക്ക് കാർ ഒക്കെ വരാൻ ബുദ്ധിമുട്ടാണ് കാരണം അത് ഒരു ഇടുങ്ങിയ വഴിയാണ് കുഞ്ഞു വഴിയാണ് വണ്ടി കയറാൻ ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വണ്ടി വരുകയാണെങ്കിൽ അതും നല്ല ബുദ്ധിമുട്ടാവും അതെ അതെനിക്ക് തോന്നുന്നു ഈ ഗൂഗിൾ മാപ്പ് ഷോട്ട് കട്ട് കാണിച്ചതായിരിക്കും കേട്ടോ അതിപ്പം മിക്കവർക്കും പറ്റാറുണ്ട് ആ അയ്യോ എനിക്കങ്ങോട്ടേക്ക് നടന്നു വരാൻ പറ്റില്ല കാരണം എനിക്ക് നല്ല ദൂരമുണ്ട് അതെ ചേട്ടൻ ഈ മെയിൻ റോഡ് വഴി വരാൻ പറ്റുമോ

അറിയില്ലെ ആ എങ്കിൽ ഞാൻ പറഞ്ഞു തരാം ചേട്ടന് വരാൻ പറ്റുമോ അ പറഞ്ഞു തരാം ചേട്ടന് അവിടെ ഒരു കുളം കാണുന്നുണ്ടോ ഒരു മീൻ വളർത്തുന്ന ഒരു കുളം കുറച്ചു വലയൊക്കെ ഇട്ടിട്ടുണ്ട് അവിടെ കണ്ടായിരുന്നോ അതിന് കുറച്ചു ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ ഒരു പലചരക്ക് കട കണ്ടായിരുന്നോ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കയറ്റമുണ്ട് മുകളിലേക്ക് പോകുന്ന ഒരു കുത്ത് കയറ്റമുണ്ട് ആ പലചരക്കു കടയുടെ തൊട്ട് അടുത്ത് പോകുന്ന ഒരു കുത്ത് കയറ്റം അ ആ കയറ്റം ഒന്ന് കേറിയിട്ട് കുറച്ചു ദൂരം പോകുമ്പോഴത്തേക്കും രണ്ട് വഴി കാണും ഇടത്തോട്ടും വലത്തോട്ടും വഴിയുണ്ടാവും അവിടെ നിന്ന് ഇടത്തോട്ട് പോകണം അ ഇടത്തോട്ട് പോവുക ഇടത്തോട്ട് പോയി കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവിടെ ഒരു സ്റ്റോറ് കാണും അതിൻ്റെ പേര് എ വൈ സ്റ്റോർ എന്നാണ് അതെ ആ സ്റ്റോറും കഴിഞ്ഞ് ഒരു ഒരു നൂറ്റി അമ്പത് മീറ്റർ കഴിയുമ്പോഴത്തേക്കും നൂറ്റിഅമ്പത് മീറ്റർ നേരെ വരുമ്പോഴത്തേക്കും വീണ്ടും രണ്ടു വഴിയായിട്ട് തിരിയുന്നുണ്ട് അവിടെ നിന്ന് വലത്തോട്ടുള്ള വഴി കയറി വരുമ്പോഴത്തേക്കും അവിടെ ഒരു ബ്യൂട്ടി പാർലർ ഉണ്ടായിരിക്കും അതിൻ്റെ പേര് എ ബി സി ബ്യൂട്ടി പാർലർ എന്നാണ് അപ്പം അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് മുന്നോട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ നിൽക്കുന്നുണ്ട് അവിടെ ആണ് എൻ്റെ വീട് ചേട്ടനിപ്പോൾ ആ കയറ്റം കേറിയായിരുന്നോ കയറി ആ കുറച്ച് ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്കും അവിടെ രണ്ട് വഴി കണ്ടായിരുന്നോ ആ അവിടെ നിന്ന് ഇത്തോട്ട് പോവുക ആ ഇടത്തോട്ട് പോയാൽ മതി ആ ഇടത്തോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ ഒരു എ വൈ സ്റ്റോറ് കണ്ടായിരുന്നോ ആ അവിടെ നിന്ന് നേരെ ഒരു നൂറ്റൻപത് മീറ്റർ നേരെ വന്നോളു അ നേരെ വന്നോളു എത്തിയോ അവിടെ നിന്ന് വീണ്ടും രണ്ട് വഴി കണ്ടായിരുന്നോ ആ അവിടെ നിന്ന് വലത്തോട്ട് തിരിയുക വലത്തോട്ട് ആ അപ്പോൾ അവിടെ ഒരു ബ്യൂട്ടി പാർലറ് കണ്ടായിരുന്നോ എ ബി സി ബ്യൂട്ടി പാർലറെന്നു ബോഡ് വച്ചിട്ടുണ്ട് അ അതിൽ നിന്ന് കുറച്ചു ഫ്രണ്ടിലോട്ട് വരു ആ ഞാൻ ദേ ഇവിടെ നിൽക്കുന്നുണ്ട് ചേട്ടൻ എന്നെ കണ്ടായിരുന്നോ ആ ശരി ഞാൻ കണ്ടു